എന്റെ പ്രദേശത്ത് എന്റെ സ്ഥലം എന്ന് പറയുന്നത് അഞ്ചൽ അലൈമണ്ണാണ് അലൈമണ്ണ് ഈ പ്രദേശത്തെ ഞങ്ങളൊരു മതസൗഹാർദ്ധപരമായ ഇടമാണ് ആ എല്ലാ മതങ്ങളെയും മതങ്ങളിൽപ്പെട്ടവരും ഒരുമിച്ച്ചേർന്ന് താമസിക്കുന്ന വളരെ നല്ലൊരു സ്ഥലമാണ് ഇവിടെ ചെയ്യുന്നത് മതപരമായ സ്ഥലങ്ങൾ മതപരമായ സ്ഥലങ്ങളെന്ന് പറയുന്നത് എന്ന്പറയുന്നത് പ്രധാനമായും ഒരു ക്ഷേത്രം ഉണ്ട് ക്ഷേത്രം അത് അത് പിന്നീട് ഒരു തൈക്കാവുവാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രദേശത്തേറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് രണ്ടും ആള്കളൊരുപോലെ കാണുന്നാണ് ആ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് ദേശത്തിന്റെ തന്നെ ഒരു ഉത്സവമായിട്ടാണ് മാറുന്നത് ആ എല്ലാ നാനാജാതി മതസ്ഥരും അതിൽ പങ്ക് ചേരാറുണ്ട് ആ പ്രദേശത്തിന്റെ തന്നെ ഒരു ഉത്സവമായി ഒരു മതസൗഹാർദ്ദത്തിൻറ്റേതായ ഒരു കേന്ദ്ര ഒരു വളരെ വ്യക്തമായ ഒരു വ്യക്തമായ ഒരു സന്ദേശം കൂടെ നൽകുന്നുണ്ട് ഇത് ആ പ്രദേശത്തെ എല്ലാവരും കാരണം അത്രയേറെ ജനങ്ങൾ തടിച്ച് കൂടുന്നു ക്ഷേത്രം കാണാനൊക്കെയായാലും അത്രയേറെ ജനങ്ങൾ തടിച്ച് കൂടുന്ന ഒരിടമാണ് അത് എല്ലാജാതിയിൽപ്പെട്ടവരും ആ ഉത്സവദിവസങ്ങളില് ക്ഷേത്രപരിസരത്തുണ്ടാകും അവിടുത്തെ പറയുന്ന ഉത്സവത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കത്തന്നെയും എല്ലാവരും ഒരുപോലെ പങ്കെടുക്കുന്ന ഒന്നാണ് പിന്നീട് നമുക്ക് ഞങ്ങളൊരു മുസ്ലിം ജുമാമത് അതുണ്ട് രണ്ട് പ്രദേശം ഞങ്ങള് താമസിക്കുന്ന ഇടമെന്ന് പറയുന്നത് ചെറിയ ധാരാളം ഇസ്ലാമികളും മുസ്ലിങ്ങളും തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ് അവിടുത്തെ എല്ലാ ഞങ്ങളുടെ അടുത്ത്തന്നെയാണ് ഈ അം ക്ഷേത്രവും ഈ തൈക്കാവും ഏതാണ്ട് ഒരേ ദൂരത്തിൽത്തന്നെ സ്ഥിതിചെയ്യുന്നു തയ്ക്കാവിലേക്കും അവിടെ ഉള്ള എല്ലാ കുഞ്ഞ്ങ്ങളായാലും അവിടെ ഉള്ള എല്ലാ ആളുകളും പോകുന്നുണ്ട് മദ്രസ പഠനത്തിനായി കുട്ടികൾ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മദ്രസ പഠനത്തിനായിട്ട് കുട്ടികൾ പോകുകയും അവരവിടെ പോയി പഠിക്കുകയും ചെയ്യുന്നു പോട്ടെ അവിടെ ആളുകൾ ആളുകൾ അവിടെ ഒരു ഒരാള് മരിച്ചുവെന്ന് അനൗൺസ്മെൻറ്റ് വന്നാൽ പോലും ഞങ്ങൾ എല്ലാവരും ഇറങ്ങിനിന്ന് കാണ് ആണ് ഞങ്ങള് ആ പ്രദേശത്തെ ആളാണെന്ന് കരുതിയെല്ലാവരും നോക്കുന്ന ഇടമാണ് ഇങ്ങനെ ഈ രണ്ട് ഈ രണ്ട് സ്ഥലങ്ങളാണ് പ്രധാനമായും പ്രധാനമായും മതാചാരമൊക്കെ മതപരമായ സ്ഥലങ്ങളെന്ന് പറയുന്നത് പിന്നെ ക്രിസ്ത്യൻസും ധാരാളമായും അവിടെ വസിക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ പിന്നെ അടുത്തുള്ള പള്ളി എന്ന് പറയുന്നത് അഞ്ചൽ ആണ്

ഉള്ളിൽ അതൊക്കെയുണ്ട് അവടേക്കാണ് ക്രിസ്ത്യൻസായ ആള്കളെല്ലാവരും അവിടേക്കാണ് എത്തിച്ചേരാറുള്ളത് പിന്നീട് ക്ഷേത്രം ക്ഷേത്രവും അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളും ക്ഷേത്രത്തിൽ ആചാര പ്രത്യേകമായ പൂജകളും മറ്റും നടക്കുമ്പോഴെല്ലാവരും പങ്ക് കൊള്ളാറുണ്ട് സപ്താഹംപോലുള്ള കാര്യങ്ങള് അവിടെ നടക്കുമ്പോളെല്ലാ മതത്തിൽപ്പെട്ട ആളുകളും അത് ശ്രദ്ധിക്കുകയും കാര്യങ്ങൾ നടക്കാറുണ്ട് വെള്ളിയാഴ്ച്ചകളിൽ നടക്കുന്ന ക്ഷേത്ര വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ നടക്കുന്ന നമസ്കാര കർമ്മം നമസ്കാരത്തിലും മറ്റ് എല്ലാവരും അവർക്ക് കാര്യം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും അതുപോലെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരിടമാണ് അത് മതപരമായ കാര്യങ്ങൾ മതപരമായ കേന്ദ്രങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായും ഈ സ്ഥലങ്ങളാണ് ഉള്ളത് ചേരുന്നു എല്ലാവരും അവിടെ പങ്ക് ചേരുകയും എത്തി ചേരുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായും മതപരമായ ആ രണ്ട് സ്ഥലങ്ങൾ അത് വളരെയേറെ പ്രധാന്യമർഹിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ മതസൗഹാർദ്ദത്തിൻറ്റേതായ ഒര് കേന്ദ്രമായി അവിടം മാറുന്നുണ്ട് എന്നതാണ് എല്ലാ ചടങ്ങ്കളിലും മതപരമായ ചടങ്ങ്കളിലോ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ആ നേർച്ചയില് നാട്ടില് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ കാര്യങ്ങൾലും എല്ലാത്തിലും പങ്കെടുക്കുകയും അവര്ൻറ്റെതന്നെ വിവാഹം അതുപോലെ ഉള്ള കാര്യങ്ങളില് എല്ലാം എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് പങ്ക് ചേരുകയും ചെയ്യുന്നുണ്ട്